താരതമ്യം ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അഭിപ്രായം വച്ച് നോക്കുകയാണേ മറ്റ് രാജ്യങ്ങളായിരിക്കും നല്ലത് നല്ലത് അങ്ങനെയാണ് പിന്നെ ഇന്ത്യേനേക്കളും നല്ല ആരോഗ്യ സംരക്ഷണ മേഖല മറ്റ് രാജ്യങ്ങളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ എത്തുന്നത് എത്തുന്നപോലെ തന്നെ അവിടുത്തെ ആശുപത്രികളും അടുത്തടുത്തൊക്കെ കാണും അവിടുത്തെ വഴികളും നല്ലതാന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വഴികൾ നമ്മുടെ റോഡുകളൊക്കെ പോയിക്കിട്ടും അപ്പം ആംബുലൻസിന് ആ ഒരു സ്പീഡിലെത്താനോ ഒക്കെ സാധിക്കണമന്നില്ല പക്ഷെ വെളി രാജ്യത്തങ്ങനെയല്ല അവർക്ക് നാല് വരി അല്ലേ എട്ട് വരി പാതയൊക്കെ ഉണ്ട് അപ്പം ആംബുലൻസ് ഒക്കെ പോവാനും പിന്നെ ആ ആശുപത്രി അവർക്ക് ഇഷ്ടംപോലെ ആശുപത്രി അടുത്തടുത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടുത്തെ അപേക്ഷിച്ച് ആശുപത്രികൾ അവർക്ക് വിദേശ രാജ്യങ്ങൾ അടുത്തടുത്ത് ആശുപത്രികൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം അതുകൊണ്ടുതന്നെ പെട്ടെന്നൊരു പരിഹാരത്തിന് വിദേശങ്ങളാണ് നല്ലത് പിന്നെ സേവനം നോക്കുകയാണങ്കിൽ ഞങ്ങളിവിടെ അടുത്ത് സർക്കാർ ആശുപത്രിയിലെ സേവനമത്ര മികച്ചതാണെന്നെനിക്ക് തോന്നിയില്ല അവിടുത്തെ ശുചിത്വം ഒക്കെ അവിടെ ശുചിത്വം അത്ര ഇല്ലെന്നാണെൻ്റെ ഒരു അഭിപ്രായം പിന്നെ ചിലവ് കുറവ് ചിലവ് കുറവ് അതേ ഉള്ളൂ സർക്കാർ ആശുപത്രികളിൽ പിന്നെ സേവനമത്ര നല്ല സേവനമല്ല ഈ സർക്കാർ ആശുപത്രികളിലൊക്കെ പിന്നീട് വരുന്ന അല്ലാത്ത ആശുപത്രികളൊക്കെ മെഡിക്കൽ ട്രസ്റ്റ് അവിടൊക്കെ പിന്നെയും നല്ല സൗകര്യങ്ങളും സേവനങ്ങളും അവർ തരുന്നുണ്ട്